വിവിധ മത പാരമ്പര്യങ്ങളിൽ ആരാധനാലയങ്ങളിൽ വിവിധ പരിപാടികൾ ആഘോഷിക്കപ്പെടുന്നു ഷേത്രത്തിലെ ഭജനങ്ങൾ കീർത്തനങ്ങൾ മസ്ജിദുകളിലെ ഞായറാഴ്ച ആരാധന ദർഗ്ഗങ്ങളിലേ ഗവാലികൾ പ്രാർത്ഥന പള്ളികളിലെ സം സഭാ പ്രാർത്ഥനകൾ ഗുരുദ്വാരങ്ങളിലെ കീർത്തനങ്ങൾ മടങ്ങളിലെ ആരാധന കൂടാതെ ഓരോ വിശ്വാസത്തിലും പ്രത്യേകമായ മറ്റ് നിരവധി ആചാരങ്ങളും ചടങ്ങുകളും ഇതിലുൾപ്പെടാം ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇതിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പം വേണമെങ്കിലും അമ്പലത്തിൽ പോകാം വരാം അങ്ങനെയാണ് അതുപോലെ ക്രിസ്ത്യൻസിനിതിലാണെങ്കിൽ ഞായറാഴ്ചകളിൽ കുർബാന ഉണ്ടാകും അതുപോലെ തന്നെ പ്രത്യേകത എന്തെങ്കിലും സ്പെഷ്യൽ ദിവസങ്ങളിലും അവർക്ക് കുർബാന ചെയ്യാം മുസ്ലീങ്ങളുടെ കേസിലാണെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച എന്തായാലും പള്ളിയിൽ പോകണം ജുമാക്ക് അതുപോലെതന്നെ എന്താണ് ഒരു ദിവസം അഞ്ച് നേരം വെച്ച് പള്ളിയിൽ പോകണം ഓരോ നമസ്കാരത്തിന്